ഫോട്ടോഗ്രാഫി എന്നത് എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ഞങ്ങൾ പണ്ടെല്ലാം ഫോട്ടോയെടുക്കാൻ പോയിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ വെക്കേഷൻ ടൈമിലാണ് ആ ടൈമിലാണ് എല്ലാ സുഹൃത്തുക്കളും ഞങ്ങൾ ഒത്തുചേരുന്നത് പിന്നീട് ഡിഗ്രി പഠനത്തിന് ശേഷവും ഞങ്ങൾ വീട്ടിൽ ഫ്രീയായിട്ടിരുന്ന ടൈമിലാണ് ഇതൊരു വിനോദ പ്രവർത്തിയായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തത്